ഞങ്ങളുടെ പ്രദേശത്ത് മൂന്ന് തരത്തിലുള്ള മത വിശ്വാസങ്ങളുണ്ട് ഹിന്ദുക്കള് ക്രിസ്ത്യൻസ് മുസ്ലിമുകള് ഹിന്ദുക്കളും ക്രിസ്ത്യൻസുമാണ് കൂടുതലും മുസ്ലിങ്ങള് ഞങ്ങളുടെ ഈ പ്രദേശത്ത് വളരെ വളരെ കുറവാണ് പിന്നേ ഹിന്ദുക്കളും ഉണ്ട് ക്രിസ്ത്യാനികളും ഉണ്ട് കുറച്ചുകൂടെ ഹിന്ദുക്കളായിരിക്കാം കൂടുതലുണ്ടാവുക എല്ലാവരും നല്ല ഐക്യത്തിലാണ് മുമ്പോട്ട് പോകുന്നത് അല്ലാതെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലുള്ള ത മറ്റു തർക്കങ്ങളോ വിഷയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നേരിടുന്നില്ല ഓരോരുത്തരും അവരുടേതായ മതവിശ്വാസത്തിൽ മുമ്പോട്ട് പൊയ്ക്കോണ്ടിരിക്കയാണ് ആരാധനാലയങ്ങൾ പള്ളികളുണ്ട് അമ്പലങ്ങളുണ്ട് അമ്പലത്തിൽ ഉത്സവങ്ങളും പള്ളികളിൽ പെരുന്നാളുകളും നടക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നല്ല രീതിയിലാണ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഓരോ സ്ഥലത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങള് അങ്ങനെയൊന്നുമില്ല ജാതി വിവേചനങ്ങളൊന്നുമില്ല എല്ലാരും ഒരേ പോലെ നല്ല സഹകരിച്ച് അമ്പലങ്ങളിൽ എന്തെങ്കിലും പിരിവുകളോ ഉണ്ടെങ്കില് ഈ ക്രിസ്ത്യൻസ് നല്ല രീതിയിൽ അതിന് സംഭാവന ചെയ്യും പള്ളികളില് എന്തെങ്കിലും പിരിവുകൾ ഉണ്ടെങ്കില് ഹിന്ദുക്കളും നല്ല രീതിയിൽ അങ്ങോട്ട് സഹകരിക്കും സംഭാവനകൾ ചെയ്യും അങ്ങ് അങ്ങോട്ടു ഇങ്ങോട്ടും നല്ല രീതിയില് മുമ്പോട്ടു പോകുന്നു പിന്നെ മുസ്ലീംസ് നമ്മളുടെ ഈ ഭാഗത്ത് വളരെ കുറവാണ്